സ്റ്റാമ്പുകളൊന്ന് സൂക്ഷിച്ചു വെക്കാത്തതുകൊണ്ടുതന്നെ എനിക്കിതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ല പക്ഷെ എൻ്റെയൊരു നോളജ് വെച്ച് അറിവു വെച്ച് പറയുകയാണെങ്കിൽ അതായത് നമുക്ക് പഴയ കുടുക്കകളൊക്കെ കിട്ടും കുടുക്കയിൽ സൂഷിച്ചു വെക്കാം അല്ലെങ്കിൽ എന്താ ഈ കോയിൻസാണെങ്കിൽ അതായത് എയറടിച്ചാൽ ഉള്ള തുരുമ്പുകൾ തടയാനായിട്ട് എയറ് കയറാൻ പറ്റാത്ത രീതിയിലുള്ള അതായത് ടിൻസൊക്ക നമ്മൾക്ക് അവൈലബിളാണ് അപ്പം അതൊക്കെ മേടിക്കുക അതിനകത്ത് സൂഷിച്ചു വെക്കുകയാണെങ്കിൽ ഒന്നും കേടുകൂടാതെ നിലനിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്